എനിക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പിന്നെ കാര്യങ്ങളും വളരെ തന്നെ ഇഷ്ടമാണ് അതായത് പൂക്കൾ ആണെങ്കിലും ഇഷ്ടമാണ് പഴങ്ങൾ ആണെങ്കിലും ഇഷ്ടമാണ് പച്ചക്കറികൾ ആണെങ്കിലും എല്ലാം എനിക്കിഷ്ടമാണ് കാരണമെന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്ന് ഭംഗി തരുന്ന ഒരു പിന്നെ സാധനമാണ് നമ്മുടെ പൂക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ പൂവ് പൂക്കൾ പൂത്തുലഞ്ഞ നമ്മുടെ മിറ്റത്ത് നിക്കുന്നത് കാണാൻ തന്നെ അത് വളരെ ഒരു ഭംഗിയാണ് അതായത് നമ്മളിപ്പോൾ നട്ടൊരു സാധനം പൂ വിരിഞ്ഞു കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയാണ് നമ്മുടെ വീടിന് ഭംഗി തരുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ പൂച്ചെടികൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് പൂച്ചെടികൾ എൻറെ വീട്ടിലുണ്ട് പഴങ്ങളും പച്ചക്കറികളും വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ ഒരു ഉ മരമുണ്ട് അത് ഇതുവരെ കായിച്ചിട്ടില്ല അപ്പം അതുമാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വാഴക്കുലകൾ രണ്ടുമൂന്നെണ്ണം നട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ എന്നുവെച്ചാൽ പച്ചക്കറികള്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഒരുപാട് ടെറസിൻ്റെ മുകളില് നട്ടിട്ടുണ്ട് നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് ടെറസിന്റെ മോളില് വെണ്ടയ്ക്ക വഴുതന തക്കാളി പാവക്ക അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടിയില് വളരുന്ന സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മള് ഇന്നത്തെ കാലത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നമ്മൾ അത് കഴിക്കുന്ന പക്ഷം നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പൊ അതുകൊണ്ടാണ് പച്ചക്കറികൾ എനിക്ക് ഇതെല്ലാം ഇഷ്ടമാണ്